രോഗങ്ങൾ തടയുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ഞങ്ങൾ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്താണെന്നു വച്ചാൽ പുറത്തു പോയിട്ടു വന്നു കഴിഞ്ഞാൽ കുളിക്കാതെ അകത്തു കയറില്ല അതായത് പുറത്ത് പോയിട്ട് വന്നിട്ട് കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ടേ അകത്തു കയറാൻ ഒക്കുള്ളൂ കാരണം അതിലൂടെ കുറേ അണുക്കൾ നമ്മുടെ ശരീരത്തിൽനിന്നു പോയിക്കിട്ടും പിന്നെ എന്തെങ്കിലും ഈ വിഷമുള്ള സാധനങ്ങൾ നമ്മൾ കൈകൊണ്ടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് സോപ്പിട്ട് നല്ല വൃത്തിയ്ക്ക് കഴുകുക പിന്നെ ഇങ്ങനെ ഓവറ് പ്ലാസ്റ്റിക്ക് ഉപയോഗം ഒന്നും നിലനിർത്താണ്ട് ഇങ്ങനെ കത്തിക്കുകയും അങ്ങനെ ഒന്നും ചെയ്യാണ്ടും പിന്നെ നല്ല നല്ല ഭക്ഷണം തന്നെ കഴിക്കുക അതായത് പച്ചക്കറിയൊക്കെ കൂടുതൽ കഴിക്കുക പിന്നെ ഓവറ് ഇങ്ങനെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെ ചില ലഹരി വസ്തുക്കളൊക്കെ ഒഴിവാക്കുക പിന്നെ ലഹരികളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക പിന്നെ ഒന്നിനും ലഹരിയൊന്നും ഉപയോഗിച്ച് ഒന്നിനും അടിമയാവാണ്ടിരിക്കുക